ഹലോ ഇത് ഐഡിയയുടെ ഓഫീസല്ലേ സാർ ഞാനേ ഈ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്തത് പിന്ന മുപ്പത്തഞ്ച് ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള ചാർജ്ജാണ് ചെയ്തത് പക്ഷേ ഇപ്പം എനിക്ക് വിളിച്ച് എന്നെ അറിയിച്ചിരിക്കുന്നു എനിക്ക് അത് രണ്ടു ദിവസത്തിനകം ചാർജ്ജ് തീരുമെന്ന് പക്ഷേ എന്താണെന്നു ഞാൻ എനിക്ക് എനിക്ക് ഇൻ്റർനാഷണൽ കോളൊക്കെ ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ അന്ന് ചെയ്തത് നെറ്റോടു കൂടിയാണ് ചെയ്തത് എന്നിട്ട് എനിക്ക് എന്തോണ്ടാ ഇങ്ങനെ പറ്റിയെന്നുള്ളത് എനിക്ക് ഇതിനെ കുറച്ച് ഒന്ന് ഒന്ന് ഒന്ന് അറിയിക്കാമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നതെന്ന് അതോ ഞാൻ ഇനി ഇതി ഇത് പിന്നെ ഐഡിയേടെ ഇതിൽ നിന്നും മാറണോ എന്നാൽ അത് ഒന്ന് ഒന്ന് ഒന്ന് ഒന്നിച്ചൊന്ന് ഒന്ന് ഒന്ന് ഇതിൻ്റെയൊരു ഡീറ്റെയിലൊന്നു തരാൻ പറ്റുമോ എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തു കാര്യം ശരിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യമെന്നു പറഞ്ഞാൽ ഈ നേരത്തെ മുൻപൊന്നും കുഴപ്പവുമില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഇന്നലെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതു തീരാൻ പോകുന്നു പെട്ടെന്ന് എത്രയും പെട്ടെന്നു വീണ്ടും അടുത്ത ചാർജ്ജ് ചെയ്തോളാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ഈ നെറ്റ് ഞാൻ ഐഡിയയാണ് സ്ഥിരം ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എനിക്ക് എന്തു കൊണ്ടാണെന്ന് അറിയില്ല ഇതൊന്നു ഇതിനെക്കുറിച്ചൊരു ഒന്ന് അറിയിപ്പിക്കാമോ അതൊന്നു ചെക്ക് ചെയ്തിട്ട് അത് സംബന്ധിച്ച് ഒരു ഇതു പറയാമോ സർ